ആ സാർ പറയൂ ആ ഓക്കെ സാർ ആ ഓക്കെ സാർ ഇപ്പോൾ ഏതെങ്കിലും പ്ലേയ്സിങ്ങിനെ ഇതാക്കുമ്പോൾ നോക്കിയിട്ട് ഉണ്ടായിരുന്നോ എവിടെയെങ്കിലും വേണമെന്ന് അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ഓക്കെ ആ ഓക്കെ സാർ ആ ഓക്കെ സാർ അപ്പോൾ നമുക്ക് അവിടേക്ക് ഇപ്പോൾ ആ ഓക്കെ വീട് ആയിട്ടാണോ വേണ്ടത് ആ പ്ലോട്ട് മാത്രമായിട്ടാണോ ഓക്കെ ഇതു അപ്പോൾ ആ ഓക്കെ വെള്ളം ആ ഓക്കെ മനസ്സിലായില്ല അടുത്ത് തന്നെയായിട്ട് വേണം അല്ലെ ഓക്കെ നിയർ ഇപ്പോൾ അങ്ങനെ നമുക്ക് ഒരു മൂന്നാല് പ്ലോട്ടുകൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ സാറിന് ഏകദേശം എത്ര സെൻറ് ആണോ അങ്ങനെ ഏക്കർ എന്തോരമാണ് വേണ്ടിവരിക വേണ്ട അല്ലെ ഓക്കെ ആ ഓക്കെ ഓക്കെ നമുക്ക് ഇപ്പോൾ ഓക്കെ നമുക്കിപ്പോൾ കല്ലായിൽ ഏകദേശം ഒരു മുപ്പത് സെൻ്റിന്റെ അടുത്തു വരുന്നുണ്ട് അതിന് ഇപ്പോൾ സെന്റിന് അവർ ചോദിക്കുന്നത് ഒരു ഒന്ന് ഇരുപത് ഒക്കെയാണ് ചോദിക്കുന്നത് സെന്റിന് അപ്പോൾ സാറിന് അത് എങ്ങനെ ആണ് പറ്റുമോ വാങ്ങാനുള്ള ആ ഒരു ബഡ്ജറ്റിൽ ഒക്കെ നോക്കുന്നുണ്ടോ സാർ

ആ ഓക്കെ ഇല്ല നമുക്ക് മെയിൻ റോഡ് സൈഡ് തന്നെ വരുന്നുണ്ട് ആ ആ ഓക്കെ ആ വരുന്നതാണോ ആ ഓക്കെ ഇതു നല്ല ആ ഓക്കെ ആ ഇപ്പോൾ നമ്മൾക്ക് ഓൾമോസ്റ്റ് വരുന്നത് എല്ലാം ഞാൻ സാറിന് ഡീറ്റെയിലായിട്ട് പറഞ്ഞുതരാം അല്ലെങ്കിൽ ഞങ്ങൾ വാട്ട്സ്ആപ്പിൽ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫോട്ടോസ് എല്ലാം വാട്ട്സ്ആപ്പ് ചെയ്തുതരാം എന്നിട്ട് സാർ ഒന്ന് നോക്കിയിട്ട് അഫോഡബിൾ ആയിട്ടു തോന്നുന്നത് ഏതാണോ അത് നമുക്ക് ചൂസ് ചെയ്ത് തരികയാണെങ്കിൽ ഞങ്ങൾ അതിന്റെ റേറ്റും കാര്യങ്ങൾ ഒക്കെ ചോദിച്ച് സാറിന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ആ പിന്നെ ആ ഓക്കെ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു രീതിക്കുള്ള സ്ഥലം തന്നെ ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുക പിന്നെ സാറിന് നോക്കിയിട്ട് പറ്റുമെങ്കിൽ അതു പറഞ്ഞാൽ മതി പിന്നെ നമുക്ക് ഇത്ര പേഴ്സന്റേജ് ബ്രോക്കർ ഫീസും കാര്യങ്ങളൊക്ക വരും അതു സാറിന് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ പറയണം പിന്നെ നമുക്ക് അതിന്റെ ഡിസ്കൗണ്ടും കാര്യങ്ങൾ ഒന്നും ഓവർ ആയിട്ട് ചെയ്തുതരാൻ പറ്റില്ല നമ്മൾ കാരണം അത്രയും ഇരുന്ന് ചെയ്യുന്നതാണല്ലൊ അപ്പോൾ സാർ ഒന്നു നോക്കിയിട്ട് പറ്റുമെങ്കിൽ മാത്രം നമുക്ക് ആ സ്ഥലം നോക്കിയാൽ മതിയല്ലോ ആ അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞുതരാം ഫോട്ടോസ് ഒക്കെ ഞാൻ വാട്ട്സ്ആപ്പ് ചെയ്തേക്കാം ആ വാട്ട്സ്ആപ്പ് ചെയ്തേക്കാം അതായത് സാർ നോക്കിയിട്ട് ഏതു സ്ഥലം ആണോ സാറിന് ഇഷ്ടപ്പെടുന്നത് അതു നോക്കിയിട്ട് നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം രജിസ്ട്രേഷൻ ഫീയും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം ഓക്കെ താങ്ക് യു ആ ഓക്കെ താങ്ക് യു സാർ സാർ വരുമ്പോൾ എന്നെ ഒന്ന് വിളിച്ചാൽ മതി ഞാൻ അപ്പോഴത്തേക്കും ബാക്കി എല്ലാം ചെയ്തുതരാം ഞാൻ ഇപ്പോൾത്തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പോട്ടും കാര്യങ്ങൾ പ്ലോട്ട് ഒക്കെ ഞാൻ ഇപ്പോൾത്തന്നെ പറഞ്ഞുതരാം വാട്ട്സ്ആപ്പ് ചെയ്തേക്കാം കേട്ടോ ഓക്കെ താങ്ക് യു സാർ